ഒരു നൃത്തം ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ നര്ത്തന വൈദഗ്ദ്ധ്യം മെച്ചപ്പെടുത്താനും ശീലിക്കാനും എല്ലാം എപ്പോഴും ഉപയോഗമായ വഴി എന്ന പറയുന്നത് അയാളുടെ തീരത്തും എപ്പോഴുമുള്ള പരിശീലനം തന്നെ ആണ് പരിശീലനം കൊണ്ട് മാത്രമേ ഒരാളുടെ ഒരാളുടെ ഒരു കഴിവ് തീർത്തും ഒരു വൈദഗ്ദ്ധ്യം മെച്ചപ്പെടുത്താൻ എന്നും സാധിക്കത്തുള്ളു നമ്മളിപ്പൊരു കലാകാരി ആണ് അതിപ്പം നമ്മളൊരു ഒരു നൃത്തകാരി ആണ് എങ്കി ആണെങ്കിൽ പോലും നമുക്ക് ഉള്ള നല്ലൊരു പരിശീലനവും അതിനു വേണ്ട പ്രയത്നം മാത്രമേ നമ്മളെ ലക്ഷ്യ സ്ഥാനത്ത് എത്തിക്കാനും നമുക്ക് നല്ലൊരു ഒരു റിസൽട്ട് തരാനും സാധിക്കത്തുള്ളു അപ്പോ എന്നും നമ്മുടെ വൈദഗ്ദ്ധ്യം മെച്ചപ്പെടുത്താണെങ്കിൽ നല്ല നല്ലപോലെ ഉള്ള പരിശീലനവും അതിനു വേണ്ടിയിട്ടുള്ള ആത്മ ഒരു ആത്മ സമർപ്പണവും അതിനു വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു ശ്രമവും അതിനു വേണ്ട മനസും പിന്നെ ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ വൈദഗ്ദ്ധ്യം മെച്ചപ്പെടുത്താൻ സാധിക്കത്തുള്ളു ഏറ്റവും കൂടുതലയി അതിനു വേണ്ടത് അതിനു വേണ്ട മനസും പരിശ്രമവുമാണ്